മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ കാലക്രമേണ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ എടുത്തുപറയേണ്ടതാണ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് ഭാഷ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ മലയാളം പറയുന്നതിന്റെ ഇടയിൽ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകള് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പലര്ക്കും സ്വിച്ച് എന്നത് ഒരു അതിന്റെ ഒരു മലയാള പദം നമുക്കറിയില്ല അതുപോലെ തന്നെ നമ്മൾ നിത്യ ജീവിതത്തിൽ ഒരുപാട് ഇംഗ്ലീഷ് പദങ്ങള് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഫാന് അതുപോലെ തന്നെ ബെഡ് അങ്ങനെ ഒത്തിരി ഇപ്പോൾ കൂടുതൽ ഇപ്പോളുള്ള കുട്ടികളാണെങ്കിൽ കൂടുതല് കൂടുതൽ അവർ ഇംഗ്ലീഷ് ഭാഷ ചേര്ത്തുകൊണ്ടാണ് മലയാളം ഭാഷ പറയുന്നത് അതുപോലെ തന്നെ ഒരു നാടിന്റെ പ്രത്യേകതകളിലൂടെയും ഒരുപാട് മലയാള ഭാഷയിൽ ഒരുപാട് വാക്കുകളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കൂടുതലും എടുത്തുപറയേണ്ടത് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു സ്വാധീനം തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുതന്നെയാണ് ഏറ്റവും കൂടുതല് എടുത്തുപറയേണ്ട ഒരു മാറ്റമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്